സംസ്കൃത ഭാഷയിൽ നിന്ന് തന്നെയാണ് മലയാള ഭാഷയുടെ ഉത്ഭവം എന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ചേർത്ത് തന്നെയാണ് നമ്മൾ പൊതുവെ നോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ സംസാരത്തിൽ വരുന്നത് അങ്ങ് അത് ഇംഗ്ലീഷ് ഭാഷ മലയാളത്തെ സ്വാധീനിച്ചത് തന്നെയാണെന്ന് പറയാം നമുക്ക് നോർമൽ ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് മലയാളം മാത്രമായിട്ട് സംസാരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇംഗ്ലീഷ് ഭാഷകളൊക്കെ കയറി വരും അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഇംഗ്ലീഷ് ഭാഷ മലയാളത്തെ നമ്മുടെ ഒരു ലൈഫ്സ്റ്റൈൽ ഒക്കെ കാരണം സ്വാധീനിച്ചത് തന്നെയാണെന്ന് പറയാം